എനിക്ക് കുറച്ച് പൂ വേണമായിരുന്നു

ഏതൊക്കെ പൂവാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ടല്ലേ ആഹ് ആഹ് ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇപ്പോൾ ചെണ്ടുമല്ലി അങ്ങനത്തെയായിരിക്കും അല്ലേ അതെ കളർ ഓറഞ്ച് മഞ്ഞ അല്ലേ അതിന് എത്രയാണ് കിലോയ്ക്ക് എത്രയാണ് വരുന്നത് നാനൂറല്ലേ തുമ്പപ്പൂവുണ്ട് ആഹ് തുമ്പ മറ്റേ വൈറ്റ് അല്ലേ വൈറ്റ് വെള്ള കളറല്ലേ ആഹ് വേറെ കളറൊന്നും ഇല്ലല്ലോ ആഹ് ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒരു കിലോ ചെണ്ടുമല്ലി വേണമായിരുന്നു ഇടുക മറ്റേ നടുക്ക് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ഒക്കെ ആക്കിയിട്ട് ഇടുമ്പോൾ വെറൈറ്റിയായിട്ട് ഇടണ്ടേ അപ്പോൾ അതേതാണ് ഇടുക വാടാമല്ലി അതിന് എത്രയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് അല്ലേ ആഹ് എന്നാൽ അതും ഒരു കിലോ എടുത്തോ കേട്ടോ റോസ് ഓണത്തിനൊക്കെ ഇടാൻ പറ്റും അല്ലേ ഇടും അല്ലേ ആഹ് ഓക്കേ ഓക്കേ എന്നാൽ റോസിന് എത്രയാണ് കിലോയ്ക്ക് മുന്നൂറ് ഏതാണ് കളർ ഏതാണ് എങ്ങനെ വേണ്ട മിക്സ് ചെയ്യേണ്ട മിക്സ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വേറെ വേറെ ആയിപോവില്ലേ അപ്പോൾ എങ്ങനെയാണ് ആഹ് എന്നാൽ അങ്ങനെ എടുത്തോ

ആഹ് അതെ അതെ ആഹ് അങ്ങനെ എടുത്തോ ഇതിപ്പോൾ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് കൊണ്ടു വരുന്നത് ഇതിപ്പോൾ വാടിയതൊന്നും അല്ലല്ലോ ഇന്ന് തന്നതാ ആഹ് ഓക്കേ ഇതെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ഗുണ്ടിൽപേട്ടാ ആഹ് ഇതിന് ലേശം റേറ്റൊക്കെ കൂടുതലാണ് ചീത്തയാകും അല്ലേ ആഹ് ഓക്കേ എന്നാൽ എന്നാൽ എന്നാൽ എല്ലാം ഒരു എന്താ പറയുക ചെണ്ടുമല്ലി ഒരു ഒരു കിലോ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ ഒരു കാൽ കിലോ വച്ചിട്ട് അങ്ങെടുത്തോ ഓക്കേ എന്നാൽ ഞാനേയ് ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേയ്ക്ക് എത്തും എല്ലാം എടുത്തുവച്ചോ അവിടെ തീർത്ത് തീർത്ത് കളയരുത് ഞാൻ വേഗം വരും ഓക്കേ എന്നാൽ ഓക്കേ